അതെ വി എം കാസർഗോഡ് സ്കൂള് പ്രിൻസിപ്പാള് എന്താണ്പ്പാ എൽ കെ ജിയിലതാ എൽ കെ ജിയിലേക്ക് ആണെങ്കിൽ ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടും ആ എത്ര വയസ്സ് ആയി കുട്ടിക്ക് എൽ കെ ജിയിലേക്ക് അല്ലേ നാല് വയസ്സ് നാല് വയസ്സ് ആയോ അപ്പോൾ എവിടെ സ്ഥലം നിങ്ങളെ പെരിയയിലോ അപ്പോൾ നിങ്ങൾ കാസർഗോഡേക്ക് എങ്ങനെ വരുന്നത് അപ്പോൾ ഉസ്കൂള് വാൻ ഉണ്ടാവും അത് ഉസ്കൂള് വാന് ഞങ്ങൾക്ക് വണ്ടിക്ക് പിന്നെ ഇത് ഉണ്ട് കോളേജ് ബസ്സ് ഉണ്ട് കോളേജ് ബസ്സിന് പൈസ ഉണ്ട് എൽ കെ ജിക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ ഫീസ് ഉണ്ട് രണ്ടാം ക്ലാസ്സിലെ അഡ്മിഷൻ ഫീസ് ഇപ്പോൾ പതിനഞ്ചായിരം ഉർപ്യ ആണ് മേടിക്കുന്നത് ഞങ്ങൾ ആ അഡ്മിഷൻ അതെ പിന്നെ വണ്ടി സ്കൂൾ ബസ്സിൻ്റെ വേറെ ഉണ്ട്

ആ ഇത് ഇപ്പോൾ നിങ്ങൾ ക്ലാസ് വിട്ട് പെരിയക്ക് ആവുമ്പോൾ മാസത്തേക്ക് അയ്യായിരത്തറുന്നൂറ് ഉർപ്യ ഞങ്ങൾ മേടിക്കുന്നത് ആ ദൂരം അല്ലേ ഒരു വർഷത്തേക്ക് ഉള്ള ഫീസ് ഫീസെന്ന് പറയുമ്പോൾ മേടിക്കുന്നത് മാസത്തേക്ക് മൂവായിരത്തഞ്ഞൂറ് വരിക മുപ്പത്തഞ്ചായിരം ഉർപ്യ നാപ്പതിനായിരം ഉർപ്യ മേടിക്കുന്നുണ്ട് അതെ നാൽപ്പതിനായിരം ഉർപ്യ ഒന്നിച്ച് അടച്ചാൽ ഒരു വർഷത്തേക്ക് നാൽപ്പതിനായിരം ഉർപ്യ അടച്ചാൽ മതി മാസത്തേക്ക് അടക്കം നാല് നാല് നാലായിരത്തഞ്ഞൂറ് ഉർപ്യ അടക്കണം അഞ്ഞൂറ് ഉർപ്യ അധികം അടക്കണം മാസത്തേക്ക് ആവുമ്പോൾ ഒരു വർഷം മൊത്തം അടക്കുന്നുണ്ടെങ്കിൽ കുറവ് ഉണ്ട് ആ അതെ ഒരു അതെ ഒരു വർഷത്തേക്ക് അടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഒരു ഓഫറ് കൊടുക്കുന്നുണ്ട് ട്രയല് കൊണ്ട് അത് അത് അത് അത് ആ ഇരുപത് അഡ്മിഷനേ കൊടുക്കുന്നുള്ളൂ അത് അതിന് ശേഷം അത് പെട്ടെന്ന് നിങ്ങൾ ചേർക്കുന്നണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫറ് കിട്ടും ഇല്ലെങ്കിൽ അത് പിന്നെ മറ്റ് ഉള്ള കുട്ടികൾക്ക് മാറി പോവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഉള്ള ചേർക്കാൻ പറ്റും രണ്ടാം ക്ലാസ്സിന് ആണെങ്കിൽ ടെസ്റ്റ് പരീക്ഷയും കാര്യങ്ങളും നടത്തേണ്ടതുണ്ട് രണ്ടാം രണ്ടാം ക്ലാസ്സിൻ്റെ ഇപ്പോൾ നമ്മൾ പരീക്ഷ തുടങ്ങും ഞാൻ ഡേറ്റ് നിങ്ങളെ അറിയിക്കാം നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ പരീക്ഷ ഡേറ്റ് നമ്മൾ കൃത്യം ആയിട്ട് പറയാം ആ അതെ നിങ്ങൾ പരീക്ഷ ഞങ്ങൾ ഒരാഴ്ച ഒരാഴ്ച മുമ്പേ നമ്മൾ ഡേറ്റ് നിങ്ങളെ അറിയിക്കും അപ്പോൾ കുട്ടീനെയും കൊണ്ട് അവിടെ വന്നിട്ട് ആയിട്ട് കുട്ടീനെയും കൊണ്ട് അവിടെ വന്നിട്ടായിട്ട് നിങ്ങൾ ടെസ്റ്റ് ടെസ്റ്റിന് ഇരുത്തിയാൽ മതി നിങ്ങളെ നമ്പറ് എൻ്റെ നമ്പർ ഉണ്ടല്ലോ നിങ്ങളെ കൈയ്യിൽ സ്കൂളിൻ്റെ അപ്പോൾ അപ്പോൾ അതിൽ വിളിച്ച് ചോദിച്ച് നിങ്ങൾക്ക് വരാൻ പറ്റും അത് ഞാൻ അതെ നിങ്ങൾ വിളിച്ചാൽ മതി ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ കുട്ടിയുടെ ഇത് അഡ്മിഷൻ ഫീസ് കുറക്കാൻ പറ്റും നിങ്ങൾക്ക് കുറച്ച് എന്നാൽ അഡ്മിഷൻ ഫീസ് നമ്മൾ ചെറിയ ഒരു ഓഫറ് പത്തായിരം ഉർപ്യയിൽ റെഡിയാക്കി തരുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് വന്ന് കഴിഞ്ഞാൽ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ നിങ്ങൾ വിളിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക് ഓക്കെ